ആ ബുക്കുകൾ നമ്മളൊരുപാടക്കെ വാങ്ങാറുണ്ട് അതായത് ഇപ്പം കൈയ്യിലുള്ളത് സത്യാന്വേഷണ പരീക്ഷണങ്ങളുണ്ട് ആടുജീവിതമുണ്ട് പിന്നെ അങ്ങനെ ബഷീറിൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെയുണ്ട് എൻറ്റുപ്പുപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബുക്കുകളൊക്കെയുണ്ട് പിന്നതുപോലെ ബുക്ക്കൾ ഏതുരീതിയിൽ പെട്ടതാണെങ്കിലും വാങ്ങി വെയ്ക്കാറുണ്ട് അത് ചിലപ്പം കുട്ടികൾക്കുള്ളതായിരിക്കാം ചിലപ്പം കളറിങ് ബുക്കായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പി എസ് സി അങ്ങനുള്ള എക്സാമിന് വേണ്ടിട്ട് പ്രീപ്പയറ് ചെയ്യാനുള്ള ബുക്കായിരിയ്ക്കാം പിന്നെ ചിലപ്പം ഇതുപോലുള്ള നോവലുകൾ ആത്മകഥകൾ ജീവചരിത്രങ്ങൾ അങ്ങനെയക്കെ ആയിരിയ്ക്കാം അത് നമുക്ക് വായനയോടൊരിഷ്ടം ഉള്ളത് കൊണ്ട് നമ്മളത് മേടിക്കാറുണ്ട് എല്ലാ ബുക്കുകളും മേടിക്കാറില്ല കാരണെന്നു വെച്ചാൽ നമുക്കിവിടടുത്ത് ലൈബ്രറിയുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ബുക്ക്കൾ നമുക്കവിടുന്നു കിട്ടും അതായത് നമ്മൾ പോയിക്കഴിഞ്ഞാൽ രണ്ടെണ്ണവെടുത്തോണ്ട് വന്നാൽ അത് വായിച്ച് തിരിച്ചോണ്ട് കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് വീണ്ടും വേറെ രണ്ടെണ്ണം എടുത്തോണ്ട് വരാൻ പറ്റും പിന്നെ ഇതുപോലെ നമ്മൾ ബുക്ക്കൾ കൂടുതലും മേടിക്കുന്നതെന്ന് വെച്ചാൽ ബുക്ക് സ്റ്റോളിൽ നിന്ന് മേടിക്കാറുണ്ട് പിന്നെ ചിലതൊക്കെ ഓൺലൈനിൽന്ന് മേടിക്കാറുണ്ട് പിന്നെ ബുക്ക് സ്റ്റേള് കൂടാതെ ഈ പഴയ ടെക്സ്റ്റ്കൾ ഇങ്ങനുള്ള ബുക്കുകളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് അപ്പം അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലയിൽ ഈ ബുക്കുകളൊക്കെ ലഭ്യമാകും അപ്പം നമക്കിപ്പം നമ്മടാവശ്യത്തിന് മേടിച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം നമുക്കതരോർമ്മ ആയിട്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യാം ഇനി ചിലപ്പം ഇതക്കെ ചിലർക്കുള്ള ഗിഫ്റ്റുകളായിട്ടക്കെ ബുക്കുകൾ കൊടുക്കാറുണ്ട് ബുക്കുകളെന്നും വളരെ സന്തോഷം തരുന്ന ഒന്നാണ് പിന്നെ ചില ബുക്കുകളൊക്കെ വായിച്ചാലും വായിച്ചാലും നമുക്ക് മടുക്കത്തില്ല വീണ്ടും വീണ്ടും വായിച്ചവതന്നെ നമ്മൾ വായിച്ചോണ്ടിരിക്കും പിന്നെ ചിലത് മറ്റുള്ളവരിലക്കെയുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാറുണ്ട് അവരുടെ കയ്യിൽ നിന്നും ചില പുസ്തകങ്ങൾ മേടിച്ചിട്ട് നമ്മൾ വായിച്ചിട്ട് തിരിച്ചുകൊടുക്കാറുണ്ട് പകരം നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ അവർക്കും വായിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പം വായിക്കുന്തോറും നമുക്ക് അറിവ് വർധിക്കും വർധിക്കുവെന്നാണ് വായനയിൽ ഒരു സന്തോഷം കാണുന്നുണ്ട് നമ്മളിപ്പോൾ ടീ വി കാണുന്നു എന്നത് എന്നതിലുപരി വായിക്കുന്നത് നമുക്കൊരുപാടറിവുകളും ആ ഒരു കഥയിലുൾപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഒരറിവ് കിട്ടുന്നതിനോടെ നമുക്ക് വായന സഹായകമാണ് ഇന്നത്തെ തലമുറയിൽ ഞാൻ നോക്കീട്ട് വായന വളരെ കുറവാണ് എല്ലാവരും ഇപ്പം ഫോണും കാര്യങ്ങളുവൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഗാം എന്ന് പറയുന്നതൊരു നോവലാണ് അതിൽ ഒരു പാദസരം എന്ന് പറയുന്നൊരു നോവൽ വായിച്ചത് ഭയങ്കര ഒരു ഫീലായിരുന്നു നല്ലൊരു റിയാലിറ്റി ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത് അതുപോലുള്ള കഥകൾ കഥകളൊരുപാട് വായിക്കാറുണ്ട് പുസ്തകങ്ങളൊരുപാട് നോക്കാറുണ്ട് പിന്നെ പി എസ് സിടെ ബേയ്സ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുവൊക്കെ മേടിക്കാറുണ്ട് അതുവൊക്കെ നോക്കാറുണ്ട് കുട്ടികൾക്കാണേലും പറഞ്ഞ് കൊടുക്കാറുണ്ട് അവർക്ക് ഓരോ ഓരോ ഓരോ ദിനങ്ങൾ ഇപ്പം പരിസ്ഥിതി ദിനം അതേപോലെ സ്വാതന്ത്യദിനം അതേപോലെ ജനസംഖ്യാ ദിനം റിപ്പബ്ലിക് ഡേ അങ്ങനെ ഒരുപാട് ദിനങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അതിൽ നോക്കി കുട്ടികൾക്കക്കെ പറഞ്ഞുകൊടുക്കാറുണ്ട് അവരെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ മേടിയ്ക്കാറുണ്ട് അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അപ്പം വായനയെന്ന് പറയുന്നത് എപ്പോഴും വലിയ ഒരു മഹത്തായ കാര്യമാണ് പുസ്തകങ്ങളുടെ കളക്ഷനുണ്ടെന്ന് പറയുന്നത് അത് അതിലും വലിയൊരു സന്തോഷമാണ്